നമസ്കാരം സാർ ആ സാർ ഞാൻ എനിക്കൊരു ലോണിൻ്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് നിങ്ങളുടെ ബേങ്ക് ലോൺ കൊടുക്കുന്നു എന്നൊരു പരസ്യം കണ്ടിട്ട് വന്നതായിരുന്നു സാറിൻ്റെ ലോണിൻ്റെ സ്കീം എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞ് തരാമോ ആ ഹൗസിങ്ങ് ലോൺ വേണം സാർ ഉം എനിക്ക് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം വരെ കിട്ടണമായിരുന്നു ആ ആ ഓക്കേ ആ ആധാരം ആ പഴയ വീടിൻ്റെ തറവാടിൻ്റെ ആധാരം ഉണ്ട് എനിക്ക് അപ്പോൾ ഞാൻ അത് അല്ലല്ല വേറെ സ്ഥലത്താണ് വീട് കെട്ടുന്നത് ഏഴ് കൊല്ലം എടുക്കും അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ സഡൻ പേയ്മെന്റ് വല്ലതും ചെയ്ത് തീർത്താൽ നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു ആണല്ലേ അപ്പോൾ നമുക്ക് പെർ മന്ത് എങ്ങനെയാണ് വരുന്നത് ആ ഓക്കേ വേറെ വേറെ ഏതൊക്കെയാണ് കുറഞ്ഞ ഇതില് വരുന്നത് നമുക്ക് ഇങ്ങനെ മാറി നോക്കാനായിരുന്നു

ഞാൻ എനിക്ക് അല്ലല്ല കേറ്ററിംഗ് സർവീസ് അപ്പോൾ ഇത് ഇരുപത്തഞ്ച് ലക്ഷത്തിന് ഇത് ഇത്രയും ഫോർമാലിറ്റി തന്നെയല്ലേ ഉള്ളൂ ഇരുപത്തി അഞ്ച് ലക്ഷം ഞാൻ പറഞ്ഞ ഫസ്റ്റത്തെ ഇരുപത്തി അഞ്ച് ലക്ഷത്തിൻ്റെ ആണെങ്കിലും ഇത്രയും ഫോർമാലിറ്റി അല്ലേ എൻ്റെ ആ ഡോക്യൂമെൻറ്റ്സും പ്ലസ് ആ പഴയെ തറവാടിൻ്റെ ആധാരം കൊണ്ടുവന്നാൽ പോരെ ആ ഓക്കേ സാർ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാ പേപ്പർസുമായിട്ട് ഞാൻ വരാം ശരി സാർ താങ്ക് യു